സാങ്കേതിക വിദ്യ വളരെയധികം വാർത്തയുടെ ഇതിൻ്റെ കാര്യത്തില് പുരോഗമിച്ചിട്ടുണ്ട് പുരോഗമിച്ചിട്ടുണ്ട് സഹായിച്ചിട്ടുണ്ട് കാരണമെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തറേണേ അടുത്തൊരു ലോറിമന മറിഞ്ഞാല് ഇപ്പം അല്ലെങ്കിൽ അങ്ങനെ ഒരു വരുമ്പഴ് പെട്ടെന്ന് ഇങ്ങനെ സാങ്കേതികമായിട്ട് വാർത്തയുടെ കാര്യത്തില് നേരത്തെ പത്രൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ഇപ്പം ന്യൂസ് ന്യൂസ് ചാനലും പിന്നെ പല പിന്നെ എന്തുണ്ട് വാട്ട്സപ്പിലൊക്കെ ഉള്ള പല ഗ്രൂപ്പായാലും പെട്ടെന്നിങ്ങനെ ഒരു ഇപ്പോൾ ഒരു ആക്സിഡൻറ്റാൻറ്റായാൽ പോലും പെട്ടന്നത് കാച്ച് അപ്പ് എല്ലാവർക്കും എളുപ്പമായിട്ട് പെട്ടെന്ന് സംഭവമെല്ലാം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനൊക്കെ സഹായിച്ച് അതുപോലെ വാർത്തയിൽ എന്തറേണേ പെട്ട ഇപ്പോൾ ഇപ്പം അറിയുന്ന കാര്യങ്ങളായാലും പിന്നെ ഫ്യൂച്ചർ നടക്കാൻ പോകുന്ന കാര്യങ്ങളായാലും പാസ്സ്ന്ന കാര്യങ്ങളായാലും പെട്ടെന്ന് എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാനൊക്കെ സഹായിച്ചു സാധിക്കുന്നുണ്ട് പിന്നെ സാങ്കേതിക വിദ്യ എന്താ പറയണെ പിന്നേ പലരും ഇപ്പം സോഷ്യൽ മീഡിയയിലും യൂസ് ചെയ്യുമ്പഴ് പല വാർത്തയുടെ ആപ്പായാലും പല കാര്യങ്ങളായാലും ഇപ്പോൾ എൻ്റർട്ടെയ്മെൻറ്റ് കൂടെ ഇങ്ങനെ ഉള്ള വാർത്തകളൊക്കെ അറിയുമ്പോൾ ഇങ്ങനൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലുള്ളൊരു സംഭവം ഉള്ളത് കൊണ്ട് പെട്ടെന്ന് മനസിലാക്കാൻ സഹായിക്കുന്നുണ്ട്